ഞാൻ മോസ്റ്റ്ലി വരയ്ക്കുന്നത് നിർജീവ വസ്തുക്കളെ നോക്കിയാണ് വരയ്ക്കാറുള്ളത് നിർജീവ വസ്തുക്കളെ നോക്കി വരയ്ക്കുക പറഞ്ഞാൽ അത് കുറേ സമയമെടുക്കും അത് മാത്രമല്ല അതേ നമ്മൾ കണ്ട പോലെ തന്നെ വരുത്താൻ കുറേ ടൈം എടുക്കും അതിൻ്റെ കറക്ട് അളവ് ഒക്കെ അതിൻ്റെ ശരിക്കും അതിനെ ഒരു വലിയ മോഡലിനെ ചെറുതായിട്ട് ചുരുക്കി ഒരു പേപ്പറില് വരയ്ക്കുക പറഞ്ഞാൽ അതൊരു വലിയ ഡിഫികൾട്ട് ടാസ്ക് ആണ് പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻ എല്ലാം കാരണം കളർ കോമ്പിനേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പിന്നെ എല്ലാം മിക്സ് ചെയ്യാനൊക്കെ നല്ല പാടാണ് പിന്നെ ടൈം കൺസ്യുമിങ്ങ് പ്രൊജക്ട് ആണ് എന്താ പറയുക ഒരു ഡ്രോയിങ്ങ് പറഞ്ഞാൽ ഇപ്പോൾ വേഗം ഒരു അഞ്ചു മിനിറ്റ് പത്തു മിനിറ്റിൽ വരയ്ക്കുന്ന വരച്ചു തീരുന്ന ഒരു സംഭവമല്ല അതും അതിനു ടൈം ഉണ്ടാവാൻ പാടില്ല ഒരു ഒര് ഒരു വസ്തുവിനെ നോക്കി വരയ്ക്കുക പറഞ്ഞാൽ അതിനെ എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെതായ ഫീച്ചേഴ്സും എല്ലാത്തിനും ഉണ്ടാവണം അതിൻ്റെ കറക്ട് മെഷർമെന്റ് അങ്ങനെ ചെറുത് ചുരുക്കിയാണ് നമ്മൾ ഒര് പേപ്പറില് വർക്ക് ചെയ്യേണ്ടത് അത് ഒര് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ നമുക്ക് കാഴ്ച വച്ച് കാഴ്ച കാണുമ്പോൾ അവർക്ക് ശരിക്കും തോന്നണം ഇത് ശരിക്കും അത് കാണവ കണ്ട വസ്തുവാണെന്ന് അതുപോലെയായിരിക്കണം ഒര് ആർട്ടിസ്റ്റിൻ്റെ കഴിവ് നമ്മൾ ആർട്ടിസ്റ്റ് പറയുന്ന പറയുന്നതിനെ ഉപരി അവർ കണ്ട് പിടിക്കുന്നതിലെ ആണ് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്